ഇപ്പം കോളേജുകളിലൊക്കെ പഠിക്കുന്നവരാണെങ്കിലും അവർക്കിപ്പോൾ ഒരു ചിലപ്പം ഇനി പത്തുമണി മുതൽ ഉച്ചവരെ അല്ലെങ്കിൽ ഉച്ചമുതൽ വൈകുന്നേരം വരെ അങ്ങനെ ഒരു ടൈം ടേബിളായിരിക്കും അവൻ്റെ ക്ലാസ്സുകളൊക്കെ പോകുന്നത് സോ ആ ഒഴിവു സമയങ്ങൾ അവൻ പാർട്ട് ടൈം ജോലികളൊക്കെ ചെയ്യും സോ ഇങ്ങനെ പാർട്ട് ടൈം ജോബുകൾ നമ്മുടെ കേരളത്തിൽ ഭയങ്കരമായിട്ടും വരുന്ന് നമ്മൾ നിൽക്കാറുള്ളത് ഷോപ്പിംഗ് മാളുകളൊക്കെയാണ് ഷോപ്പിംഗ് മാൾ റെസ്റ്റോറൻറുകൾ അങ്ങനെയൊക്കെ ആയിരിക്കും വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുക കാരണം അവർക്ക് അവരെ പഠിക്കുന്നതോടൊപ്പം തന്നെ ഒരു സ് സ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു സാലറിക്ക് വേണ്ടി അങ്ങനെ കുറേ പേർ പാർട്ട് ടൈം ജോബായിട്ട് സ്വീകരിച്ചു പോകുന്നുണ്ട് നമ്മൾ ആ ഒരു ഇത് നോക്കുമ്പോൾ നമ്മുടെ ഒരു ആവശ്യങ്ങൾ നിറവേ നിറവേൽ ചിലവർ ഈ പാ ജോലി ചെയ്യുമ്പം തന്നെ പിന്നെ അവർക്ക് പൈസയോട് തന്നെ ആഗ്രഹമായിട്ട് ചിലപ്പം ജോലിയൊക്കെ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ട് സോ ചിലവർ ജോലിയും പാർട്ട് ടൈം ജോബും ഒരുമിച്ച് കൊണ്ടു പോകുന്നവരും ഉണ്ട് ചിലപ്പം ഇനി പഠിക്കുന്നുവെന്നുള്ള സ്ട്രെസ്സ് കാരണം പാർട്ട് ടൈം ജോബ് ചെയ്യാണ്ട് വരികയൊക്കെ ചെയ്യും എന്നാലും കേരളത്തിൽ ഭയങ്കര ആയിട്ടുള്ള വിനോദ കേന്ദ്രങ്ങളായിട്ട് വരുന്നത് ഈ റെസ്റ്റോറൻറുകളും ഷോപ്പിംഗ് മാളുകളും തന്നെയാണ് മാളുകളെന്ന് പറയുമ്പോൾ ഒരു മാളിൽ തന്നെ ഒരു ആ ഒരു നമുക്ക് എണ്ണിയെടുക്കുന്നതിലും കടകൾ ഉണ്ടാകും സോ കുട്ടികളാകുമ്പോൾ അവർ വേഗമെന്ന് ആകർഷിക്കുകയും കുട്ടികൾക്കും പൈസ കുറവ് കൊടുത്താൽ മതിയായിരിക്കും സോ അതുകൊണ്ട് തന്നെ ഈ കോളേജ് കുട്ടികളെയൊക്കെ ആണെങ്കിലും ഈ മുതലാളികൾ നിൽക്കുന്ന ആകർഷിക്കാൻ വേണ്ടിയായി ശ്രമിക്കുന്നു ഒക്കെ ഉണ്ടാകും